എൻ്റെ പേര് അക്മൽ എന്നാണ് ഞാൻ എൻ്റെയൊരു കമ്പനിക്കാരൻ പറഞ്ഞിട്ടെടുത്ത ഫോണായിരുന്നു ഫോണൊക്കെ നൈസാണ് കേട്ടോ എന്താ വച്ചു കഴിഞ്ഞാൽ സെൽഫി ഒക്കെ നല്ല പക്കാ ക്ലിയറാണ് നല്ലൊരു ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ റേറ്റ് കൂടിയ ഫോൺ എടുത്താലും എൻ്റെ നമ്മുടെ ക്യാമറെൻ്റെ എന്തായാലും നോക്കുമല്ലോ ക്യാമറയുടെ കാര്യത്തിൽ പക്ക ആണ് കേട്ടോ ബാക്ക് ക്യാമറ ഒക്കെ സൂമിങ്ങ് ഒക്കെ അടിപൊളിയാണ് നമുക്കെത്ര ലോങ്ങ് വേണമെങ്കിലും സൂം ചെയ്തെടുക്കാൻ പറ്റും ക്യാമറ പക്കയാണ് പിന്നെ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ പിന്നെ നല്ല രീതിയിൽ ഒരു മികച്ച ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആണ് ഫോണ് അതുപോലെതന്നെ ഹാങ്ങും കാര്യങ്ങളും ഒന്നുമില്ല വളരെ സ്മൂത്താണ് ഫോണ് നമുക്കിപ്പോൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുമ്പം അടിപൊളിയായിട്ടാണ് കിട്ടുന്നത് പിന്നെ ആ ഫോൺ എല്ലാം കൊണ്ടും സൂപ്പറാണ് ഈ റേറ്റിന് ഈയൊരു ഫോണ് അടിപൊളിയാണ് പിന്നെ അത്യാവശ്യം നല്ലൊരു പവറ് കിട്ടുന്നുണ്ട് ഫോൺ